ഹലോ ഒരു പട്ടീനെ ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരുന്നു അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യുക എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആയിരുന്നു എന്റെയടുത്ത് ഉള്ളത് ഒരു ലാബ് ആയിരുന്നു ആ

എടുക്കാൻ പറ്റും അല്ലേ ആ ഓക്കെ ഓക്കെ പിന്നെ അയി ആ ആ പിന്നെ നീറ്റ് ആക്കിത്തരും ആ ചെയ്യുന്നത് അല്ലേ അപ്പം അതിന് ഭയങ്കരമായിട്ട് കടിക്കുന്നുണ്ട് അപ്പോൾ അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ

ആ അറിയാം അറിയാം ആ ചെയ്യാൻ പറ്റില്ല അല്ലേ അ അ ആ എന്നാലും ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെറുതെ നിൽക്കുമ്പോഴത്തേക്കും വെറുതെ വന്നിട്ട് കടിക്കുക ആ കടിക്കുമ്പോൾ കടിക്കുമ്പം ഭയങ്കര വേദനയാണ് ആ ആ ഓക്കെ ഓക്കെ ആ ആ അതിനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ ഇപ്പം നിങ്ങള അടുത്ത് തന്നെ ട്രെയിനിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ ആ ഇല്ല കമാൻഡ്സ് മാത്രം മതി ഗൈഡ് ഡോഗ് അങ്ങനത്തെ പിന്നെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ജസ്റ്റ് കമാൻഡ്സ് അപ്പം ഇത് ഇപ്പം കൂട്ടിൽ കയറാൻ പറഞ്ഞാൽ കൂട്ടിൽ കയറുക ആ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ വേണ്ട അല്ലേ ഇല്ല ഏജ് അധികം ഏജ് ഒന്നും ഇല്ല ഇല്ല ഇല്ല ഇല്ല ചെറിയ ആ ചെറുത് ആ ചെറുത് ഓ ഞാൻ വന്ന് നിന്നോളാം കുഴപ്പം ഇല്ല ആ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഞാൻ നാളെ വരട്ടെ എന്നാൽ ഓക്കെ ഓക്കെ എന്നാൽ നാളെ ഞാൻ വരാം എന്നാൽ മ്